കോഴിക്കോട് ജില്ലയില് കുറച്ച് പ്രധാനമായ സ്ഥലങ്ങളെന്ന് പറയുമ്പം നമുക്ക് ഫാമിലി അങ്ങനെ ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് കറങ്ങാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുമ്പം മെയിനായിട്ടെന്ന് പറയുമ്പം മിട്ടായി തെരുവൊക്കെ ഉണ്ട് മിട്ടായി തെരുവെന്ന് പറയുമ്പം ഫാമിലീൻ്റെ കൂടെ പോയി കഴിഞ്ഞാലും കുട്ടികൾക്കാണേലും അല്ലങ്കിൽ വന്നവർക്കാണേലും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നേന്ന് പറയുമ്പം ബീച്ച് ബീച്ച് സൈഡെന്ന് പറയുമ്പം നമുക്ക് ഈവെനിംഗ് ടൈമ് പോയിട്ട് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഉള്ളവരുടെ കൂടെ പോയിട്ട് നമുക്ക് അവിടെ അടിച്ച് പൊളിച്ച് ജീവി നടക്കാം പിന്നെ ഉള്ളതെന്ന് പറയുമ്പം തുഷാരഗിരി തുഷാരഗിരിന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ഫാൾസ് ആണ് അവിടേന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി നീന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളി ആയിട്ട് അവിടെ ഇതാക്കാം അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാം പിന്നേന്ന് പറയുമ്പം ലയൺസ് പാർക്കുണ്ട് പിന്നെ സ്വീ സ്വീറ്റ് സ്ട്രീമുണ്ട് അതെന്ന് പറയുമ്പം കോഴിക്കോടുള്ള മെയിനായിട്ടുള്ളേന്ന് പറയുമ്പം ഈ ഹലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലോണ്ട് പിന്നേന്ന് പറയുമ്പം കുറെ മ്യൂസിയമ്സ് ഉണ്ട് കോഴിക്കോടെന്ന് എന്ന് പറയുമ്പം അവിടെ നമുക്ക് കാണാൻ മാത്രം ഇങ്ങനെ കാണാന്ന് പറയുമ്പം കുറെ കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ നമുക്ക് ഫാമിലിയോ അല്ലെങ്കിൽ ഒറ്റക്കോ അങ്ങനെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളുള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങനെയൊന്നും കണ്ട് തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ലായിരിക്കും